ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ഒത്തുപോകാൻ പറ്റാത്ത ആളുമായിട്ട് ഞാൻ അങ്ങനെ ഒത്തുപോകാറില്ല കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മുകളിലുള്ള ആളാണെങ്കിൽത്തന്നെ എനിക്ക് ആജ്ഞാപിച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ട്ടപ്പെടില്ല കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ വേണം എനിക്ക് വർക്ക് ചെയ്യാനുള്ള താത്പര്യവും കാര്യങ്ങളൊക്കെയുള്ളത് അപ്പോൾ എനിക്ക് എന്ത് ഇപ്പോൾ എന്നെ മോശമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ട്ടപ്പെടില്ല അപ്പം ഞാൻ ചിലപ്പം അതിനകത്തു നിന്ന് അവിടെ നിന്ന് റിസൈന് ചെയ്തിട്ട് വേറെ ജോലികൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനിക്ക് കൂടുതലായിട്ട് ഈ ബിസിനെസ്സ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതാകുമ്പോൾ ആരെയും പേടിക്കണ്ട നമ്മൾ വേറാരുടെയും കാൽച്ചുവട്ടിലൊന്നുമല്ല അപ്പോൾ നമ്മളെ ആരും ഉപദേശിക്കാനും നമ്മളെ ആരും എന്താ പറയുക പേടിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അങ്ങനത്തതിനോടൊക്കെയാണ് താത്പര്യം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ളത് കാരമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു ജോലി ചെയ്തിട്ടും അത് ചെയ്തിട്ടില്ലയെന്നു പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ അവരുടെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ റിസൈന് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അവരോട് ചൂടായിട്ടാണ് ഇറങ്ങിവന്നത് അപ്പോൾ അവർ എന്നെയും മോശമായ രീതിയിലും എൻ്റെ വീട്ടുകാരെയും മോശമായ രീതിയിലൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പ്രശ്നം ഞാൻ ഇങ്ങനെയാണ് പരിഹരിച്ചത് എനിക്ക് ഇഷ്ടപ്പെടാത്തതു കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു